എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ബ്ലൂട്ടൂത്ത് ഹെഡ്സെറ്റ് ആണ് അത് നല്ലൊരു വാങ്ങുന്ന സമയത്തേക്ക് ആവുമ്പം തന്നെ എന്തായാലും നല്ല ഹെഡ്സെറ്റ് ആയിരുന്നു നമ്മുടെ നല്ല ഹൈ നല്ല സൗണ്ട് ഒക്കെയായിരുന്നു അതേ സമയം വേഗന്ന് ചാർജ് കയറും അങ്ങനെ വേഗന്ന് ചാർജ് ഇറങ്ങുവൊന്നൂമില്ല നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഒക്കെ നല്ല സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊന്നു പറയുമ്പോൾ വാട്ടർപ്രൂഫ് ആണ് അതിന്റെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മെത്തേഡ് ഒക്കെ നല്ല രെ അടിപൊളിയാണ് പിന്നെ മാത്രമല്ല വേഗന്ന് ചാർജ് കയറും നല്ല സൗണ്ട് ഒക്കെയാണ് നല്ല ഹെഡ്സെറ്റ് ആയിരുന്നു എൻ്റെ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് അതാണ് ഇതിനെക്കുറിച്ച് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അത്യാവശ്യം നല്ല ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ സൗണ്ടിങ് കപ്പാസിറ്റി നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ എൻ്റെ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് പിന്നെ നെഗറ്റീവ് പറയുവാണെങ്കിൽ തന്നെ അതിപ്പം വാങ്ങി വാങ്ങി കുറേ കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഒരു സൈഡ് ഒരു സൈഡ് കേൾക്കാണ്ടായി കേൾക്കാണ്ടായിപ്പോയി പിന്നെ അതിന്റെ വയർ ഒക്കെ അഴിഞ്ഞുവരാൻ തുടങ്ങി പിന്നെ ചാർജിങ് ഇങ്ങനെ കയറാണ്ടായി അങ്ങനെ കുറേ നെഗറ്റീവ് സൈൻസ് ആണ് പിന്നെ ഇതിനുള്ളത് അങ്ങനെയാണിപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രൊഡക്ട് ഇതാണ് എൻ്റെ നെഗറ്റീവ് പറയാനുള്ളത് ഇപ്പം വാട്ടർപ്രൂഫ് വെള്ളം തട്ടിയാലിങ്ങനെ പോകുന്ന ടൈപ്പ് ആണ് പിന്നെ അതിന്റെ ഒരു സൈഡ് മാത്രമേ കേൾക്കാൻ പറ്റുന്നില്ല പിന്നെ വയർ ഒക്കെ ലൂസ് ആയിപ്പോയി വയർ ഒക്കെ കട്ട് ആയിപ്പോയി ഇതൊക്കെയാണ് ഇപ്പോൾ എന്റെ സെക്കൻഡ് പ്രൊഡക്ടിന്റെ പ്രശ്നം എന്ന് പറയുന്നത്